അതിൻ്റെ ലിറിക്സ് ആദ്യം തന്നെ ഞാൻ മനഃപാഠമാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ലിറിക്സറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ട്യൂണിനനുസരിച്ച് അപ്പം പാടാൻ സാധിക്കത്തുള്ളു അതേപോലെ തന്നെ തണുത്തതൊന്നും കൂടുതൽ ഉപയോഗിക്കാതെ ചൂടുള്ള പദാർത്ഥങ്ങൾ മാത്രം ആ ഒരു സെക്ഷനിൻ്റെ സമയത്തുപയോഗിക്കുക ശ്രമിക്കും കാരണം പെട്ടെന്നു ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നതു കൊണ്ട് തണുത്തതുപയോഗിക്കുമ്പം എൻ്റെ തൊണ്ടക്ക് നല്ല മാറ്റങ്ങളുണ്ടാകാറുണ്ട് സൊ ഞാൻ തണുത്തത് അധികം കഴിക്കാറില്ല പ്രത്യേകിച്ച് റെക്കോർഡിങ്ങ് സെക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു സിങ്ങിങ്ങ് കോംപറ്റീഷൻ്റെ ടൈമിൽ ഞാൻ തണുത്തതുപയോഗിക്കാറേ ഇല്ല പിന്നെ ലിറിക്സ് കൂടുതലും മനഃപാഠമാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഫോൺ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിലതു പേപ്പറിൽ ഉള്ളത് യൂസ് ചെയ്യുമ്പോഴോ എനിക്ക് എന്തോ ഒരു ടൈമിങ്ങ് തെറ്റാനുള്ള സാദ്ധ്യത വളരെ എനിക്കു പേഴ്സണലി ഭയങ്കരകൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം തന്നെ രീതിക്കു പാട്ട് കേട്ട് ലിറിക്സ് വായിച്ചു പഠിച്ചു മനഃപാഠമാക്കി വെക്കും എന്നിട്ട് പിന്നെയും പാടി നോക്കും പ്രാക്ടീസാണ് കൂടുതൽ ചെയ്യാറുള്ളത് പ്രാക്ടീസ് ചെയ്യുമ്പം ഭയങ്കര ഈസിയായിട്ടു തോന്നാറുണ്ട് പിറ്റേന്നു പാട്ടു പാടുമ്പോൾ സൊ പ്രാക്സ്റ്റീസ് ചെയ്യുക പിന്നെ തണുത്തതു കഴിക്കാതിരിക്കുക അതാണ് മെയിനായിട്ടു ചെയ്യുന്നത്